മലയാളികളെ സമയുന്നെടത്തോളം ഭയങ്കരമായിട്ട് മലയാളികൾ സംസ്കാരത്തിനെ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ പാരമ്പര്യങ്ങളെ സംരക്ഷിക്കുന്നു അതിനൊക്കെ ആഘോഷിക്കേണ്ട സാധനങ്ങളെ ആഘോഷിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഇപ്പോൾ ഓണമുണ്ട് വിഷു ഉണ്ട് അതുപോലെ മറ്റ് ആഘോഷങ്ങളൊക്കെയുണ്ട് അതെല്ലാം മലയാളികൾ വലിയ ഒരു ഉത്സവമായിട്ട് തന്നെയാണ് ആഘോഷിക്കുന്നത് അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു പുരോഗതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഇതെല്ലാം വളരെയധികം ചരിത്രപരമായി ആഘോഷിക്കുന്നതാണ് അത് പിന്നെ കാലതാമസം അല്ലെങ്കിൽ പിന്നെ കാലാകാലങ്ങളായി അടുത്ത തലമുറയിൽ നിന്നും തലമുറയിലേക്ക് കൈമാറി കൈമാറി അത് ആഘോഷിക്കപ്പെടുന്നു തീർച്ചയായിട്ടും ഇപ്പോൾ വിദേശത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പോലും അവർ അവിടെ വിഷു ആഘോഷിക്കുന്നു ഓണം ആഘോഷിക്കുന്നു അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ പോലും മലയാളികൾ മലയാളികൾ അവ ർ അവരുടെ ഭാഷയെയോ സംസ്കാരത്തെയോ പാരമ്പര്യമോ പാരമ്പര്യത്തെയും മറക്കാൻ അവർക്ക് ഒരിക്കലും സാധിക്കില്ല കാരണം അത്രത്തോളം ഒരു ജീവൻ തന്നെയാണ് അവർക്ക് അത് കാരണം അവർ സാംസ്കാരിക പരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഒരു കൂട്ടായ്മ മലയാളികൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നതാണ് അതുപോലെ തന്നെ എന്നായിരുന്നു ഈ ഒരു ഇതിലൂടെ ഒക്കെ അവർ മലയാളികൾ അവരുടെ ഭാഷയെ ബെല്യ രീതിയിൽ പ്രാധാന്യത്തോടെ നമുക്ക് കാണുവാൻ കാണാൻ സാധിക്കും ഇപ്പോൾ നമുക്ക് അറിയാം ചില കുട്ടികൾകൊക്കെ അവർക്ക് മലയാളം വലിയ രീതിയിൽ വായിക്കാൻ അറിയത്തില്ല അതുപോലെയൊക്കെ വായിക്കുന്നെതിനെ അവർ മാതാപിതാക്കളും സുഹൃത്തുക്കളുമൊക്കെ സഹായിക്കുന്നു കാരണം നമ്മളെ ഇംഗ്ലീഷ് ഭാഷയോടൊപ്പം നമുക്ക് അറിയാം ഇംഗ്ലീഷ് ഒരു ലോകം ഇതായിട്ടുള്ള ഒരു ഭാഷയാണെങ്കിൽ മലയാളത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഒരു എന്താണ് ഒരു ഒരു ഒരു ഒരു സംസ്ഥാനപരമായിട്ടുള്ള ഒരു ഭാഷ തന്നെയാണ് അത് നമ്മുടെ സംസ്ഥാന പരമായിട്ടൊക്കെ നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ വകുപ്പുകളിലും കാര്യങ്ങളിലുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് തീർച്ചയായിട്ടും മലയാള ഭാഷ എപ്പോഴും അതിൻ്റെ ഒരു എന്താണ് ഒരു വലിയ ഒരു തലതിരിയാണ് എപ്പോഴും നിൽക്കാറുള്ളത് കാരണം നമ്മളെ ഭാഷയെന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലോ കാരണം നമ്മുടെ ഭാഷയെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്തു വേണമെങ്കിലും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും വളരെ അധികം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എല്ലാവരും ഭാഷയെ സംരക്ഷിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ വിദേശ രാജ്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചില സമയത്ത് ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പല രാഷ്ട്രീയപരമായിട്ടുള്ള വിവേചനങ്ങളും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇപ്പോൾ ഇന്ത്യയെ തന്നെ ഭാഷാടിസ്ഥാന്നത്തിൽ സംസ്ഥാനങ്ങൾ വേർതിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കാരണം അതിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന അവർ എത്രത്തോളം ആ ഭാഷയെ വലിയ രീതിയിൽ കാണുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം ഭാഷയ്ക്ക് വേണ്ടി ഇപ്പോൾ പലതരമായിട്ടുള്ള ടെക്നോളജി പരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചു വരുന്നുണ്ട് അപ്പോൾ അതും നമ്മൾ നോക്കി കാണേണ്ട ആവശ്യമാണ് നമ്മൾ ഇപ്പോൾ നമ്മളെ ഓണത്തിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഓണത്തിന് തന്നെ കുറെ വകഭേദങ്ങളൊക്കെയുണ്ട് അതിൽ തന്നെ നമ്മളെ മലയാള ഭാഷയും നമ്മുടെ ആ ഒരു സംസ്കാരവും നമ്മുടെ ഭക്ഷണത്തിൻ്റെ രീതിയൊക്കെ അതിൽ പ്രതിഫലിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും വെറെ ഒരു വിദേശ രാജ്യത്തെ ഒരാളെ വിദേശ സംയുക്ത അതൊക്കെ വളരെ വ്യത്യസ്തമായിട്ട്ള്ള ഒരു കാഴ്ചയാണ് കാരണം അവരുടെയൊക്കെ ആ ഒരു ഇതൊന്നും കാണാൻ സാധിക്കത്തില്ല ഇപ്പം നമുക്ക് അറിയാം വിദേശത്തുള്ള കുറെ ആൾക്കാരൊക്കെ എവിടെ വിദേശികളായിട്ട് അല്ലെങ്കിൽ ടൂറിസ്റ്റുകളായിട്ട് വരുന്നുണ്ട് അപ്പോൾ അവർകൊക്കെ നമ്മൾ ഈ ഓണസമയത്തൊക്കെ നമ്മുടെതായിട്ടുള്ള ഒരു സംസ്കാരം കാണിക്കുകയും ആ ഒരു അവർക്ക് അവരെ സാരി ഉടുപ്പിക്കുക ആ പെണ്ണുങ്ങളെയാണെങ്കിൽ സാരി ഉടുപ്പിക്കുക ആണുങ്ങളെ ആണെങ്കിൽ ഷർട്ടും മുണ്ടും ഒക്കെയാണ് അവരെ അവർ അവർക്ക് അതൊക്കെ വലിയ പുതുമയും വളരെയധികം രസകരവുമാണ് നമുക്കും അതൊക്കെ കാണുമ്പോൾ നമുക്കും വലിയ ഒരു കൗതുകം തന്നെയാണ് കാരണം ഇത്ര ഈ ഈ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നമ്മൾ നമ്മുടെ ഭാഷയേയും സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ഒക്കെ നമ്മൾ സംരക്ഷിച്ചേ പറ്റുള്ളു മലയാള ഭാഷ എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട് നമ്മൾ നമ്മുടെ ഭാഷയെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം സ്കൂൾ തലത്തിലൊക്കെ ആണെങ്കിൽ പോലും ഇംഗ്ലീഷിനൊപ്പം തന്നെ മലയാള ഭാഷയും വളരെ പ്രാധാന്യത്തോടെ തന്നെ പഠിപ്പിക്കുന്നുണ്ട് അധ്യാപകർ തീർച്ചയായിട്ടും അത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇപ്പോൾ കുറെ ആൾക്കാർക്ക് മലയാള ഭാഷയെ കുറിച്ച് അവർക്ക് അവരെ എഴുതാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല അത് തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ഒരു എന്താണ് വലിയ ഒരു ഒരു ഒരു ബുദ്ധിമുട്ട് ആവുന്നു നമ്മുടെ അടുത്ത് നമ്മൾക്കും നമുക്ക് അറിയാം അറിയാം നമ്മുടെ ഭാഷയാണെങ്കിലും നമ്മുടെ സംസ്കാരമാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യ ആഘോഷങ്ങളൊക്കെ ആണെങ്കിൽ അടുത്ത തലമുറയിലേക്ക് നമ്മൾ കൈമാറേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു തലമുറയിലൂടെ അത് നിർത്തുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയൊരു അപരാധം തന്നെയാണ് നമ്മുടെ മലയാള ഭാഷയോട് നമ്മൾ കാണിക്കുന്നത് അത് തീർച്ചയായിട്ടും അടുത്ത തലമുറയുടെ നമ്മൾ അത് പ്രതിഫലിപ്പിക്കുന്നു അല്ലെങ്കിലത് കൈമാറ്റം ചെയ്യപ്പെടണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് അടുത്ത ഇതിലൂട്ടൊക്കെ അങ്ങനെ പോകുള്ളൂ നമ്മുടെ മലയാള ഭാഷ ഇപ്പോഴും അത് ജീവനോടെ ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അതിനെ ഒരു ഒരു ഒരു ഒരു ഒരു അവിടെ ഒരു ഒരു തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഭാഷ ഇത്തരം ഇത്ര എത്ര നാളാണ് നമ്മളെ കെട്ടിപ്പിടിച്ചു പിന്നെ നിർത്തിയ നമ്മുടെ ഭാഷയോട് നമ്മള് ചെയ്യുന്ന വലിയൊരു ക്രൂരത തന്നെയായിരിക്കും അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം മലയാളഭാഷ അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം എല്ലാവരും നൽകുന്നുണ്ട് കാരണം മലയാളി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ലോകത്ത് എവിടെ ഏത് കോണിലും മലയാളി ഉണ്ടെന്നും പറയുന്നു അത് തീർച്ചയായിട്ടും നമ്മൾ മലയാളിക്ക് അവരുടെ സംസ്കാരം നമ്മൾ തീർച്ചയായും രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണാൻ സാധിക്കുന്നു നമ്മൾ ഇപ്പോൾ വിദേശത്ത് ഒക്കെ പോയാലും പല ആൾക്കാർക്കും ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ആകുലത എന്തെന്ന് വച്ചാൽ അവിടത്തെ സംസ്കാരവുമായിട്ട് നമ്മുടെ സംസ്കാരത്തെ മാറ്റിയിട്ട് അവിടത്തെ സംസ്കാരം നമ്മടെ കുട്ടികൾ സ്വീകരിക്കുമോ അവിടെ ജോലിന്നെടം സ്വീകരിക്കുംപ്പ് എന്നൊക്കെയാണ് പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ചിലപ്പോൾ അവർക്ക് അവരുടെ പ്രൊഫഷനലായിട്ടുള്ള ജീവിതം മുന്നോട്ടുകൊണ്ടു പോകണമെങ്കിലേക്ക് അവരുടെ ആ സംസ്കാരം ഫോളോ ചെയ്യണമായിരിക്കും അല്ലെങ്കിൽ അതിനെ നന്നായിട്ട് കൊണ്ടുപോകണം ആയിരിക്കും പക്ഷേ എന്നാൽ പോലും ഈ ആഘോഷങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അവർ ഓണം ആഘോഷിക്കുന്നു വിഷു ആഘോഷിക്കുന്നു മറ്റ് മലയാളമായിട്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങൾ ആഘോഷിക്കുന്നു അതൊക്കെ അവിടെ സദ്യ ഉണ്ടാക്കുന്നു മറ്റു വിദേശികളുടെ കൂടെ നമ്മുടെ ഭാഷയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അത് നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു അതൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതൊന്നും ഒരിക്കലും മലയാളികൾ മറക്കത്തില്ല അത് മലയാളികൾ എവിടെ വന്നാലും എവിടെ ചെന്നാലും ചെയ്യും തീർച്ചയായിട്ടും മലയാളികൾ പോലയന്നേ വടുക വലിയ രീതിയിൽ അതിനെ മുന്നോട്ടു നീങ്ങാൻ സാധിക്കും ഭാഷയുടെയൊക്കെ ശക്തികൊണ്ട് അതു കാരണം നമ്മുടെ ആ ഒരു മനസ്സുകൊണ്ടൊക്കെ നമുക്ക് മുന്നോട്ടു കൊണ്ടു പോകാൻ സാധിക്കും തീർച്ചയായിട്ടും നമ്മുടെ മലയാള ഭാഷ എന്ന് പറയുന്നത് കേരളം മലയാളത്തെ ഭാഷ പല പല വൈവിധ്യങ്ങൾ തന്നെ അതിൽ കാണാൻ സാധിക്കുന്നു ഇപ്പം തൃശൂരുകാർ സംസാരിക്കുന്ന ഒരു ഭാഷയല്ല പത്തനംതിട്ടക്കാർ അല്ലേ കോട്ടയംകാരൊക്കെ സംസാരിക്കുന്നത് തിവന്തപുരം കാസർകോട് കോഴിക്കോടൊക്കെ ചെന്ന് നമുക്ക് ആ മാറ്റം വലിയ രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് കാസർക്കോട് ഒക്കെയാണെങ്കിൽ മലയാള ഭാഷ തന്നെയാണോ സംസാരിക്കുന്നത് എന്നു വരെ നമുക്ക് സംശയം തോന്നും അതുപോലെയാണ് അവരൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ മലയാള ഭാഷ സംരക്ഷിക്കണം നമ്മുടെ പാരമ്പര്യത്തെയും അതുപോലെ തന്നെ അതൊക്കെ സംരക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ അടുത്ത തലമുറയിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യണം